ഹലോ ഞാൻ എറണാകുളത്തുനിന്ന് വിളിക്കുവായിരുന്നു ആ ഇപ്പോൾ ട്രഡീഷണൽ ഫുഡ് എന്തൊക്കെയാണ് ഉള്ളത് ഇപ്പം വയനാട്ടിൽ ആ ഓക്കെ ഓക്കെ അപ്പം ഫിഷ് ഐറ്റംസ് എന്തൊക്കെയാണ് ഉള്ളത് ആ ഓക്കെ അപ്പം നമുക്ക് ഇപ്പം നോൺവെജും വെജും എല്ലാം കൂടെ എത്ര റേറ്റ് വരും കൂടുതലായിട്ടും വരുക ആ ഓക്കെ ഓക്കെ ഇളനീർ ഒപ്പിച്ച് ആ ഓക്കെ വൺ ഫിഫ്റ്റി ആ ഓക്കെ നമ്മൾ കുറച്ച് കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പേർ ഉണ്ടാവും അപ്പം അപ്പം കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് തരുവാണെങ്കിൽ ഞങ്ങൾ അവിടേക്ക് തന്നെ വരാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത് ചെയ്യാൻ പറ്റും അല്ലേ

ആ സ്റ്റേ ചെയ്യണം സ്റ്റേ ചെയ്യണം അപ്പം നമുക്ക് ഉച്ചയ്ക്കത്തെ ഉള്ളതും പിന്നെ രാത്രിയും രാവിലെ എല്ലാ ഭക്ഷണവും വേണം ആ അതെ അതെ

മൊത്തം സാദാ രാവിലെ ഒക്കെ നമുക്ക് സാദാ നമ്മൾ വെജിറ്റബിൾ കുറുമയോ മറ്റേ അപ്പവും മുട്ടക്കറിയോ അപ്പവും അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ മതി നമുക്ക് അല്ലാണ്ട് വലിയ രീതിയിലുള്ള ഫുഡ്ഡുകൾ കാര്യങ്ങളൊന്നും വേണ്ട രാവിലെ ഉച്ചയ്ക്ക് നമുക്ക് പിന്നെ കുറച്ച് നോൺ വെജ് ഒക്കെ ആയിട്ട് ആണെങ്കിലും കുഴപ്പം ഇല്ല ആ ചെയ്തുതരും അല്ലേ ആ ഓക്കെ ഓക്കെ എപ്പോഴേക്കാണ് വരേണ്ടത് മറ്റന്നാൾ ചെയ്തോളും അല്ലേ ആ ഓക്കെ ഓക്കെ എന്നാൽ നാളെ ഞാൻ വിളിക്കാം എന്നാൽ ഓക്കെ എന്നാൽ